ഞാൻ ഇത് വരെ ഒരു ആർട്ട് എക്സിബിഷനോ എക്സ്പോയോ സന്ദർശിച്ചിട്ടില്ല സന്ദർശിക്കാൻ വളരെ അധികം ആഗ്രഹമുണ്ട് കാരണം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ അങ്ങനെ ഒരു ആർട്ട് എക്സിബിഷനോ എക്സ്പോയോ ഒന്നും ആർട്ട് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഉണ്ടായി അറിയപ്പെട്ടിട്ടില്ല അത് ഈ ഫോണിലൂ യൂട്യൂബും ടീവിയും വാർത്തയെല്ലാം കാണുമ്പോൾ തിരുവനന്തപുരവും എറണാകുളം എല്ലാം അങ്ങനെ വല്യ വല്യ കലാകാരന്മാരുടെ ആ എക്സിബിഷൻസ് ഒക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ കാണണമെന്നാഗ്രഹമുണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരുപാട് ഓരോ ചിത്രത്തിൻ്റെ പുറകിലും ഓരോരോ അർത്ഥങ്ങളുണ്ട് അതിന് ഒരോരോ കാരണം ആ ചിത്രം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ തന്നെ അതിനോരോരോ ആ ചിത്രകാരൻ ആ അതും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഒരു ചിത്രം കണ്ട് കഴിഞ്ഞാൽ തന്നെ ചില ചിത്രങ്ങള് കണ്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ആർട്ട് എക്സിബിഷൻ കാണണം അത് ആസ്വദിക്കണം അതിൻ്റെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് ഇത് വരെ സാധിച്ചിട്ടില്ല നമ്മുടെ അടുത്ത് പ്രദേശത്ത് എവിടെ എങ്കിലും അത് വന്ന് കഴിഞ്ഞാൽ കാണാൻ പോവണം എന്ന് തന്നെയാണ് ആഗ്രഹം